ഹലോ ആണോ പേരെന്താണ് ആ എവിടുന്നാ വിളിക്കുന്നത് അതെയല്ലേ ആ ആ ആ പനിയൊക്കെ എപ്പോൾ തുടങ്ങിയെന്നാ പറഞ്ഞേ അതേയോ എങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണോ പനി അതോ മരുന്ന് ആ ഗുളിക എന്തേലും കഴിച്ചായിരുന്നോ അതേയോ വീട്ടിലാർക്കെങ്കിലും വേറെ പനിയുണ്ടോ അതേയോ ആ ആ ആ അല്ല ആണല്ലേ ആ ആ അപ്പോഴില്ലേ ആവി ആവി പിടിച്ചായിരുന്നോ ആണോ നല്ലവണ്ണം ആവി പിടിക്കാം അതു ഒരു രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ആവി പിടിക്കുക കേട്ടോ എന്നിട്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ കാണിക്കാൻ കുറഞ്ഞ് കുറഞ്ഞില്ലങ്കിൽ ആ ഒരു ഒരു പനീന്റെ ഗുളിക കഴിച്ച് നോക്കാം കേട്ടോ എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് വന്ന് കാണിക്കണേ അതെയല്ലേ ആ ആ ആണോ അ ആ ചുമയോ അതെയല്ലേ അപ്പോൾ ഒന്ന് വന്നിട്ട് അതെയല്ലേ അപ്പോൾ ഇല്ലേ ബ്ലഡ്ഡൊന്ന് ടെസ്റ്റ് ചെയ്യണേ ഇപ്പോൾ കുറേ ദിവസത്തെ പനിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് മരുന്ന് തരാം കേട്ടോ

അതെയല്ലേ ആ ആ നിങ്ങളെന്തായാലും ഒന്ന് വന്ന് കാണിക്ക് കേട്ടോ ഇവിടെ വന്നിട്ടേ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടേ മരുന്ന് തരാം എന്താണെന്ന് നോക്കട്ടെ പനി ഇപ്പോൾ എല്ലാവർക്കും ഞാനോ വൈകുന്നേരം ഒരു നാലുമണി മുതൽ പരിശോധനയുണ്ട് പോര് കേട്ടോ ആ ആയിക്കോട്ടേ ആ എന്നാൽ ശരി ആയിക്കോട്ടെ